ആ ഹലോ ഹലോ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ഇതെവിടെയാണ് ആ ഹലോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ ഇത് എവിടെയാണ് ഇത്

അത് ശരി അപ്പോൾ അവിടെ ഏ ഏതെല്ലാം തരത്തിലുള്ള പൂക്കളുണ്ട് അത് ശരി റോസപ്പൂ എല്ലാ കളേഴ്സും ഉണ്ടോ അത് ഏത് രീതിയിലാണ് നിങ്ങള് കൊടുക്കുന്നത് പ്ളാ പിന്നേ ഇത് ഇതളുകളായിട്ടും മൊട്ടുകളായിട്ടുവൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണ് റോസാപ്പൂവിൻ്റെ

അതുശരി അപ്പം ഞങ്ങൾ ഈ ഷോപ്പിലെത്താൻ എത്താനായിട്ട് എങ്ങനെയാണ് നിങ്ങള് ഹോം ഡെലിവെറി ഉണ്ടോ അതോ നേരിട്ട് കോൺണ്ടാക്ട് ചെയ്യുവോ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടിയത് അപ്പോൾ ഹോം ഡെലിവെറി ആകുമ്പോൾ റേറ്റ് കൂടുവായിരിക്കുമോ അതുശരി അപ്പോൾ അത് ഞങ്ങള് ഒരു കാര്യം ചെയ്യ് ഞാനേ ഒന്നുല്ലെങ്കിൽ നേ ഒന്നും കൂടി വിളിച്ചിട്ട് വരികയോ അല്ലെങ്കില് നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം ഇത് ആ അറിയിപ്പിക്കാം ഇത് കോട്ടയത്ത് തിരുനക്കരയിൽ തന്നെയല്ലെയോ തിരുനക്കര കോട്ടയത്തിൻ്റെ പ്രോപ്പർ പ്ളേയ്സിൽ തന്നെയല്ലേ ഇത് ഉം അത് സെൻ്ററിൽ തന്നെയാണല്ലോ ഇല്ലേ സെൻ്ററിൽ തന്നെയാണല്ലോ ഇത് പിന്നെ തിരുനക്കരയെന്നു പറയുന്ന സ്ഥലം കോട്ടയം അതെയോ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ ശരി എന്നാൽ വരാം അധികം താമസിക്കാതെ തന്നെ വരാൻ നോക്കാം കേട്ടോ ഓക്കേ